എൻ്റെ സെക്കൻ്റ് പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ മറ്റെ ഹെഡ് സെറ്റാണ് എൻ എച്ച് ബ്ലൂ ടൂത്തിൻ്റെ ഹെഡ് സെറ്റ് അതെന്ന് വെച്ചാൽ വാങ്ങിയ സമയത്തൊക്കെ നല്ല ഹെഡ് സെറ്റായിരുന്നു നല്ല സൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു അത് വാങ്ങി കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ടങ്ങായിപ്പോയി പിന്നെ അതിൻ്റെ സ്പീക്കറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് രണ്ട് സൈഡിൽ ഇയർ ഫോൺസൊക്കെയുണ്ടല്ലോ അപ്പോൾ ഒരു സൈഡിൽ കേൾക്കില്ല പിന്നെ ഒരു സൈഡിലെ വയർ കട്ടായി പോകുക അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങി പിന്നെ അതിനെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക ചാർജ് പെട്ടെന്ന് കയറുന്നില്ല കയറാണെങ്കിൽ തന്നെ പെട്ടെന്ന് ചാർജ് ഇറങ്ങുന്നുണ്ട് അതുപോലെതന്നെ എന്താ പറയുക ഒരു സാധനം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറെ നെഗറ്റീവ് എക്സ്പീരിയൻസാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് വാങ്ങിയ സമയത്തൊക്കെ നല്ല പ്രൊഡക്റ്റായിരുന്നു നല്ല ഹൈ ക്വാളിറ്റി വെക്കന്ന് ചാർജ് കയറും അങ്ങനെ കുറെ നല്ല കാര്യങ്ങളാക്കെയുണ്ടായിരുന്നു പക്ഷെ വാങ്ങി യൂസ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഇറങ്ങിപ്പോയി വേഗം ചാർജ് ആകുന്നില്ല അതുപോലെ തന്നെ ഒരു സൈഡ് ഹെഡ് സെറ്റിൻ്റെ ഒരു സൈഡ് ഹെഡ് സെറ്റിൻ്റെ ഒരു സൈഡ് ക കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ പ്രശ്നം ഹെഡ് സെറ്റിന് വരാൻ തുടങ്ങി ഇതാണ് എൻ്റെ ഹെഡ് സെറ്റിനെക്കുറിച്ച് പറയാൻ നെഗറ്റീവ് എക്സ്പീരിയൻസ്